ആ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഗ്രാമത്തിൽ പല പല ക്ഷേത്രങ്ങളുണ്ടെങ്കിലും ഏറ്റവും അടുത്തായിട്ടുള്ളത് ഒരു മന്ദിരാണ് അവിടെ അയ്യപ്പനെയാണ് ആരാധന മൂർത്തിയായിട്ട് ഉള്ളത് എല്ലാ മാസവും ശനിയാഴ്ചകളിൽ പൂജകൾ നടക്കാറുണ്ട് പ്രധാനമായിട്ടുള്ള പൂജ എന്ന് വെച്ചാൽ എല്ലാ വർഷവും ഒരു ദിവസം പ്രതിഷ്ഠാ വാർഷികം ആയിട്ട് ആഘോഷിക്കുന്നുണ്ട് അത് ജനുവരി മാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ചയാണ് ആഘോഷിക്കുന്നത് അന്ന് രാവിലെ മുതൽ തുടങ്ങുന്ന പൂജ രാത്രി രാത്രിയിലത്തെ പൂജയോട് കൂടിയാണ് അവസാനിക്കുന്നത് രാവിലെ മുതൽ പൂജയും ഭജനയും എല്ലാം നടക്കും ഉച്ചസമയത്ത് പന്ത്രണ്ട് മണിയാകുമ്പോൾ സ്പെഷ്യൽ പൂജയും പ്രത്യേക പൂജയും നടക്കും ഈ ദിവസങ്ങളിൽ നാടിൻ്റെ പല ഭാഗത്തു നിന്നും ആൾക്കാർ അവിടെ എത്തിച്ചേരും മറ്റുള്ള പൂജകളെക്കാൾ അന്നത്തെ പൂജ വളരെ പ്രധാനപ്പെട്ടതാണ് ഉച്ചയ്ക്കത്തെ പൂജയ്ക്ക് ശേഷം പ്രസാദം അന്നദാനം ഇവ നടത്തും നടക്കുന്നുണ്ട് ഈ ദിവസമെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് മറ്റ് സ്ഥലങ്ങളിൽ ഉള്ളവരും പല പല സ്ഥലങ്ങളിൽ പോയവരും ഒക്കെ ഒത്തുചേരുന്ന ഒരു ദിവസം കൂടിയാണ് എല്ലാവരെയും കാണാനും ബന്ധുക്കളെ തമ്മിൽ കാണാനും ആഘോഷിക്കാനും ഒക്കെയുള്ള ഒരു ദിവസം കൂടിയായിട്ടാണ് ആൾക്കാർ ഈ നല്ലൊരു ദിവസത്തെ കണക്കാക്കുന്നത് ഉച്ചപൂജ കഴിഞ്ഞ് അന്നദാനം ഏകദേശം ഒരു മൂന്നു മണിവരെ ഉണ്ടാകും അതിനു ശേഷം എല്ലാവരും വീടുകളിലേക്ക് പോകും പിന്നെ വൈകുന്നേരം ആറുമണി ഒക്കെ ആകുമ്പോൾ തൊട്ടടുത്ത കുറച്ചു ദൂരമാണ് അത്ര അടുത്തല്ല അമ്പലത്തിൽ നിന്ന് മറ്റൊരു അമ്പലത്തിന്ന് ഒരു കാഴ്ച വരും കാഴ്ചയിലെ സ്വാമിമാരും താലപ്പൊലി ഏന്തിയ ബാലികമാരും നിശ്ചല ദൃശ്യങ്ങൾ അങ്ങനെ പല പല കാര്യങ്ങൾ അത് ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കും ആൾക്കാർ എല്ലാവരും കൂടി അവിടെ നിന്ന് നടന്നുകൊണ്ട് കാഴ്ച ഈ മന്ദിരത്തിലേക്ക് വരും മുൻപുള്ള വർഷങ്ങളിലൊക്കെ ഒരുപാട് വൈകുയിരുന്നു ഇപ്പോൾ അത്രയും വൈകുന്നില്ല കാഴ്ചയിൽ നാട്ടുകാരും എല്ലാവരും റോഡ് സൈഡിൽ നിന്നിട്ട് കാഴ്ച കാണാൻ വേണ്ടി നാട്ടുകാരൊക്കെ നിക്കുവായിരിക്കും അതുകഴിഞ്ഞിട്ട് നടന്ന് നടന്ന് കാഴ്ച പൂജ സമയമാകുമ്പോഴാണ് മന്ദിരത്തിലേക്ക് എത്തുന്നത് ചില വർഷങ്ങളിൽ ആ സമയത്ത് കലാപരിപാടികൾ മന്ദിരത്തിൽ ഉണ്ടാകും കലാപരിപാടികൾ കഴിയുമ്പോഴേക്കും ഈ കാഴ്ചയും എത്തിച്ചേരും അത് കഴിഞ്ഞ് വിശേഷാൽ പൂജ അത് കഴിഞ്ഞ് നടയടക്കാറാണ് ഉണ്ടാവാറ് രാത്രി ഉച്ചയ്ക്കുള്ളതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ ചില സമയങ്ങളിൽ രാത്രി ആൾക്കാർ എത്തിച്ചേരാറുണ്ട് ഈ പരിപാടിയുള്ള ദിവസങ്ങളിൽ ആണെങ്കിൽ ഉള്ള സമയമാണെങ്കിൽ ആൾക്കാർ പൂജ വരെ കാത്തു നിന്നിട്ട് പൂജയും കഴിഞ്ഞ് പ്രസാദം വാങ്ങിയാണ് വീട്ടിലേക്ക് തിരിച്ചു പോകാറ് ഗ്രാമത്തിലുള്ളവർ എല്ലാവരും ഒത്തുചേരുന്ന ഒരു ദിവസം കൂടി ആയതിനാൽ ഓരോ വർഷവും ആ ദിവസത്തിനുവേണ്ടി എല്ലാവരും കാത്തിരിക്കും കുട്ടികളാണെങ്കിലും അന്ന് സ്കൂളുള്ള ദിവസമാണെങ്കിൽ സ്കൂളിൽ അവധിയെടുത്ത് ആ ദിവസം ആഘോഷിക്കും അത്രയും ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു ദിവസം കൂടിയാണ് ആ വാർഷികത്തിൻ്റെ ആ ദിവസം അയ്യപ്പൻ്റെ ശബരിമല ഉള്ളതുപോലത്തെ എല്ലാ ചടങ്ങും ഒന്നുമില്ലെങ്കിലും ആ ഒരു പൂജ സമയത്തുള്ള എല്ലാ കാര്യങ്ങളും ഏകദേശം ഭക്തിയുടെ അതേ രീതിയിൽ ആ ഭക്തിയിൽ അതേ രീതിയിൽ തന്നെയാണ് നടക്കുന്നത് ഹരിവരാസനം പാടിയിട്ടാണ് നട അടക്കുന്നത് ആ സമയത്ത് എല്ലാവരും പ്രാർത്ഥിച്ച് എന്താന്നറിയാത്ത ഒരു എന്തോ ഒരു ഭക്തിയുടെ ഒരു അത്യുന്നതമായ ഒരു തലങ്ങളിലേക്ക് പോലും എത്തിക്കുന്ന രീതിയിലാണ് ആ സമയത്തുള്ള ഒരു പൂജ ഉണ്ടാവാറ്